ഇന്ന് സ്കൂളിൽ തോപ്പ്രാകുടി സ്കൂളിൽ ഞാൻ പഠിച്ചോണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും എല്ലാ ദിവസവും പി ടി പിരിയഡ് ഉണ്ടായിരുന്നു ഒൻ നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിൽ പി ടി പിരിയഡ് സ്പോർട്സ് ഡേ എന്നിവ എല്ലാ കൊല്ലവും ഉണ്ടായിരുന്നു സ്കൂളിൽ വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരം എല്ലാ കൊല്ലവും ലഭിച്ചിരുന്നു കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കാനും മാനസീകമായി അവരുടെ മനസിനെ അവര് പിന്തുണയ്ക്കാനും കായിക അവസരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ എല്ലാ ദിവസം തന്നെയും കായിക പി പി ടി പിരീഡുകളിൽ പങ്കെടുക്കുവായിരുന്നു ആ പി ടി പീരിയഡ് എന്ന് പറയുമ്പോത്തേക്ക് ഫുട്ബോൾ ഫുട്ബോള് ക്രിക്കറ്റ് വോ വോളിബോള് എന്നീ മത്സരങ്ങളും പിന്നെ കബഡി എന്നൊക്കെ കളിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ സ്കൂ സ്കൂളുകളിൽ എല്ലാ കൊല്ലവും അത് അതിൽ വർഷത്തിലെ ഒരു ദിവസം പി ടി പിരീഡ് പി ടി പിരീഡും പിന്നേ സ്പോർട്സ് ഡേയും നടത്തുവായിരുന്നു സ്പോർട്സ് ഡേ എല്ലാ എന്നാ ഓരോ തലങ്ങളിലും ഓരോ കളർ അടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരുന്നത് എല്ലാ എല്ലാ നാല് ഗ്രൂപ്പ് വിധമായിരുന്നു സ്പോർട്സ് ഡേയിൽ ഉള്ളായിരുന്നത് ആ നാല് ഗ്രൂപ്പിലെ ഏറ്റവും മികച്ച ടീമിനെ മത്സരത്തിൽ സമ്മാനം നൽകുകയും അവരെ പ്രോത്സാൽിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഈ സ്പോർട്സ് ഡേയിൽ ഫസ്റ്റ് കിട്ടുന്നവർ കായിക മേളയ്ക്കായി ജില്ലാ തലത്തിലേക്ക് തെരഞ്ഞെടക്കപ്പെടും അവിടുന്ന് ജില്ലാ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉടൻ തന്നെ അവിടുന്ന് സെലെക്ഷനായാൽ സ്റ്റേറ്റ് തലത്തിൽ പങ്കെടുക്കാം അത് ജില്ലേ ജില്ലേ പ്രതി ജില്ലേ ജില്ലയ്ക്ക് വേണ്ടിയായിരിക്കും പങ്കെടുക്കുന്നത് അതുപോലെ ഈ ജില്ലയിലെ ഒരു മികച്ച സ്കൂളിനും മികച്ച പങ്കാളിത്തതിനും ഇപ്പോൾ അവ പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു സ്കൂളുകളിലും സ്കൂളുകളിൽ എല്ലാ കുട്ടികളും തന്നെ ഈ പി ടി പിരീഡ് പങ്കെടുക്കുമായിരുന്നു കായിക പ്രവർത്തനകൾ ഏർപ്പെടാന് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഏറ്റവും ഉന്മാദം നൽകാനും കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കാനും ഇത് സഹായിച്ചു അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഓരോ കായിക പിരീഡുകളിലും സ്പോർട്സ് ഡേയിലും ആണ് നമ്മുടെ അത്ലെറ്റിക്കായ പി ടി ഉഷേനെ പോലെയുള്ള താരങ്ങൾ നമുക്ക് ലഭിച്ചത് അവരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇത് നമുക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പി ടി പിരീഡുകൾ കുട്ടികൾക്കെല്ലാം നൽകണം അതാണ് ഇതിൻ്റെ ഉന്നമനത്തിന് ഏറ്റവും ചേതമായത് കുട്ടികളിൽ ഈ കായിക ദിവസങ്ങളിൽ അല്ല പി ടി പിരീഡുകളിൽ ടീച്ചർമാർ അത് ഏറ്റെടുത്ത് അവര് പഠിപ്പിക്കുന്ന സമയങ്ങളായി എടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മാറ്റി നിർത്തി കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാക്കണം കുട്ടികളിൽ ത കുട്ടികളിൽ ഏറ്റവും എളുപ്പമുള്ള രീതി തന്നെയ കുട്ടികളിൽ ഏറ്റവും മാനസിക ഉന്മേഷം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ പി ടി പിരീഡ് അതുകൊണ്ട് തന്നെ ഈ പി ടി പിരീഡുകൾ ഒരിക്കലും അവർക്ക് നഷ്ടപ്പെടുത്താനുള്ള അവസരം ഉണ്ടാക്കരുത്